ഇത് വി ഇത് വി കെ ജി വെജിറ്റബിൾസ് അല്ലേ ഓക്കെ എൻ്റെ പേര് ദേവദത്തൻ ഞാനിവിടെ തൃശൂർന്നാണ് വിളിക്കണത് എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ ഈ അടുത്ത് ഒരു മാരിയേജ് ഫങ്ഷൻ നടുക്കുന്നുണ്ട് അപ്പം എനിക്ക് അതിനായിട്ട് കുറച്ച് വെജിറ്റെബിൾസ് നിങ്ങടടുത്തൂന്ന് ഓഡറ് ചെയ്യാനായിട്ടായിരുന്നു എൻ്റെയൊരു ഫ്രണ്ടാണ് നിങ്ങളുടെ നമ്പറന്നെ അവനിതേപോലെ ഈയടുത്തന്നെ പാവാട്ടീലാണവൻ്റെ വീട് അവനീയടുത്ത് നിങ്ങടവിടുന്ന് ഈ വെജിറ്റെബിൾസ് എടുത്തിട്ട് നല്ല ക്വാളിറ്റിയാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെന്നാണ് എനിക്കീ നമ്പറിട്ടീത് അത് ആഷ്മിൻ അതെയതെ

ഓക്കെ ഓക്കെ ആ എനിക്ക്

എനിക്ക് എനിക്കീ വരുന്ന പതിനാറാംതിക്കാണ് വെജിറ്റെബിൾസ് വേണ്ടത് ഇത് കല്യാണ ഫങ്ഷനാണ്

പത് പതിനേഴാംതിയാണ് കല്യാണം പക്ഷേ നമുക്ക് തലേദിവസം ഫുഡ്ഡിൻ്റെ ഏ ഏർപ്പാടുകൾ തുടങ്ങണോലോ തലേ ദിവസത്തേം പിന്നെ പിറ്റേ ദിവസത്തെ ഫുഡ്ഡിൻ്റെ ഇതും റെഡിയാക്കണോല്ലോ അപ്പോൾ എനിക്കൊരു ഉച്ചയൊക്കെ ആകുമ്പഴേക്കും ഫുഡ്ഡ് വെജിറ്റെബിൾസ് എത്താണെങ്കിൽ ആ കാറ്റ്റിങ്ങ്കാർ അങ്ങനെയാണ് പറഞ്ഞത് ഉച്ചയാകുമ്പോൾ കിട്ടുവാണെങ്കിൽ അവർക്ക് പ്രിപ്രേഷൻ തുടങ്ങാന്നാണ് പറഞ്ഞത് ഓക്കെ കാറ്റ്റിങ്ങ്കാർ പറഞ്ഞത് അവരേകദേശൊരു അഞ്ച് മണിയാകുമ്പോൾ വരുന്നാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളു എനിക്കൊരു നാലര അഞ്ച് മണി ആവുമ്പന്നെ എത്തിച്ചാൽ മതി ഒരഞ്ച് മണിയാകുമ്പോൾ എത്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ അവർ അവർ റെഡി ആയതിന് ശേഷം നിങ്ങളെ വിളിച്ചാൽ മതിയല്ലേ ഓക്കെ ഓക്കെ അതെതെ ബൾക്കായിട്ടാണ് എനിക്ക് തലേദിവസത്തേക്കും പിറ്റേ ദിവസത്തെ സദ്യക്കും മൊത്തായിട്ടാണ് വെജിറ്റെബിൾസ് എടുക്കണത് ഓക്കെ ഓക്കെ ഞാനെന്നാൽ ലിസ്റ്റിന്ന് പറഞ്ഞ് തരാം എനിക്ക് തക്കാളി പത്ത് കിലോ വഴുതനങ്ങ രണ്ട് കിലോ മുരിങ്ങക്കായ പത്ത് കിലോ വെള്ളരിക്ക എട്ട് കിലോ ഉരുളൻ കിഴങ്ങ് പത്ത് കിലോ സബോള പന്ത്രണ്ട് പിന്നെ കരിവേപ്പിലയും മല്ലിയെലയും പുതിനേലയും എല്ലാം ഓ ഓ ഓക്കെ ഓക്കെ അതുപോലതന്നെ വെള്ളരിക്ക പറഞ്ഞുണ്ടാരുന്നോ ഞാൻ പിന്നെ ലിസ്റ്റിൽ പച്ചമുളക് അഞ്ച് കിലോ

എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാം ഏതാ നല്ലത് നമുക്കിതിൽ സാധാരണ ടൈപ്പെടുത്താൽ മതി അതുപോലെ തന്നെ ഇനി വേണ്ടത് വെണ്ടക്കായ ഒരു അഞ്ച് കിലോ വേണം പിന്നെ വേറെ ക്യാരറ്റ് അഞ്ച് കിലോ ക്യാബേജ് അഞ്ച് കിലോ വേണം പിന്നെ വേറെ ലിസ്റ്റിൽ വരുന്നത് പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിൾ തോരൻ

ആ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ നമ്പർലേക്ക് ഇവരായച്ച് തന്നിട്ടുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചെരാം

ഓക്കെ ഓക്കെ അപ്പയെനിക്ക് ഇതിൻ്റെ പൈസേടെ ഡീറ്റേയ്ൽസും എനിക്ക് വാട്സപ്പിലെന്നെ ഞാൻ ലിസ്റ്റായച്ചെരുമ്പോൾ അയ്ച്ചന്നാൽ മതി ഓ ഇത് തൃശ്ശൂർ ബ്രമോസാണെൻ്റെ സ്ഥലം

ആ അതന്നെ അതന്നെ പൗർണമി ഹാളിന്ന് കുറച്ച് പോയാൽ മതി ആ വീട്ടിക്കെത്തിച്ചാൽ മതി വേണ്ട വേണ്ട വീട്ടിക്കെത്തിച്ചാൽ മതി ഓക്കെ ഓക്കെ ഞാൻ വാട്സപ്പിൽ ഈ നമ്പറിലന്നെനിക്ക് വാട്സപ്പൊണ്ട് ഞാൻ മെസ്സേജയ്ക്കാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ